ആ ഇത് ഈ വീടൊക്കെ പെയ്ൻറ് ചെയ്യുന്ന പെയ്ൻറ്റിങ്ങ് കോൺട്രാക്റ്റർ ആണോ ആ എൻ്റെയൊരു വീട് പെയ്ൻറ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്തുതരാൻ പറ്റുമോ വീട് ഏകദേശം ഒരു രണ്ടായിരം സ്കൊയർ ഫീറ്റ് ഉണ്ടാവും അപ്പോൾ അതിന് ഏകദേശം എത്ര പെയ്ൻറ്റ് വേണ്ടി വരും അഞ്ച് ലിറ്ററ് വേണ്ടി വരും അപ്പോൾ കളറ് പല കളറിൽ വരും അപ്പോൾ പുറത്ത് വേറൊരു കളറ് ആണ് ഉള്ള് ഉള്ള് വൈറ്റ് കമ്പ്ലീറ്റ് വൈറ്റ് അടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് പുറം പിന്നെ ഒരു ലൈറ്റ് ബ്ലൂ ഒക്കെ ആണ് ഉദ്ദേശിക്കുന്നത് ഏകദേശം എത്ര പണിക്കാർ വരും ലേബറ് എത്രയാൾക്കാർ വരും ആവോ അല്ലേ ആ ആ ആ നമുക്ക് പെട്ടെന്ന് എന്തായാലും ഒരാഴ്ച്ചകൊണ്ട് പണി തീരേണ്ടി വരും അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു റേഞ്ച് എല്ലാ വർക്കേഴ്സിൻ്റെ എണ്ണം അറേഞ്ച് ചെയ്തിട്ട് ഇത് ചെയ്യണം മൊത്തം കരാറ് സാധനങ്ങൾ പെയ്ന്റൊക്കെ ഞാൻ വാങ്ങിത്തരാം എന്നിട്ട് ലാബറ് ലാബറ് കരാറായിട്ട് എടുക്കാം അപ്പം ഒന്ന് വന്നിട്ട് ഒന്ന് നോക്കിയിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ പുൽപ്പറ്റ ആണ് വീട് നിങ്ങളൊന്ന് നോക്കിയിട്ട് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നിങ്ങൾക്ക് തരാൻ പറ്റും എന്നുണ്ടെങ്കിൽ വന്നിട്ട് ഒരു എസ്റ്റിമേറ്റ് തരുക ഏകദേശം എത്ര പിന്നെ ലാബറ് ലേബേഴ്സ് വേണ്ടിവരും എന്നുള്ള ഒക്കെ ഒരു കണക്ക് എടുത്തിട്ട് ഒരു എസ്റ്റിമേറ്റ് തരാൻ പറ്റുമോ എന്ന് നോക്കീ എന്നാൽ അതനുസരിച്ച്

അതിൻ്റെ ആ ആയിക്കോട്ടെ അതെങ്ങനെ വെച്ചാൽ ആലോചിച്ചിട്ട് ചെയ്യുക ഇപ്പം ലേബർക്ക് കോൺട്രാക്റ്റ് തരുമ്പോൾ ഭക്ഷണം തരേണ്ടതുണ്ടോ എന്ന് നിങ്ങൾ സാധാരണ എങ്ങനെയാണ് നിങ്ങൾ എടുക്കൽ ഭക്ഷണം കൂടിയിട്ട് അതുൾപ്പെടെയാണ് തരൽ ആ ഓക്കെ എന്നാൽ ആ എന്നാൽ ഒന്ന് നേരിട്ട് വരാൻ നോക്കി ഓക്കെ ഓക്കെ